നമ്മുടെ സംസ്ഥാനത്തിൻ്റെ സാംസ്കാരിക സ്വത്തമല്ലേൽ കൾച്ചറൽ ഐഡൻടിറ്റി രൂപപ്പെടുത്തുന്നതിൽ മലയാള ഭാഷ കൃത്യമായും വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട് കൃത്യമായും നമ്മുടെ സംസ്ഥാനത്തെ നമ്മൾ മറ്റൊരിടത്തേക്ക് ചെല്ലുമ്പോൾ അടയാളപ്പെടുത്തുന്ന ആദ്യത്തെ ചില കാര്യങ്ങളിലൊന്നാണ് നമ്മുടെ നമ്മുടെ സാഹിത്യം നമ്മുടെ ഭാഷ എന്ന് അലെങ്കിൽ നമ്മൾ മറ്റൊരിടത്തേക്ക് ചെല്ലുമ്പോൾ നമ്മളെ അടയാളപ്പെടുത്തുന്ന ഒന്നാണ് ഭാഷ എന്നുള്ളത് മലയാളം ശ്രേഷ്ഠ ഭാഷ പദവി നേടിയൊരു ഭാഷയാണ് കൃത്യമായും സംസ്ഥാനത്തിൻറ്റൊരു സാംസ്കാരിക രീതി അതിൻ്റെ കലകൾ അതിൻ്റെ ഏറ്റവും മൂല്യവത്തായിട്ടുള്ള കാര്യങ്ങൾ അതിൻറ്റൊരു ഐഡൻടിറ്റി അത് മറ്റിടങ്ങളിലേക്ക് എത്തിക്കുന്നതിന് മലയാള ഭാഷ കൃത്യമായും ഒരു പങ്ക് വഹിച്ചിട്ടുണ്ട് മലയാളത്തിലെ മറ്റ് സംസ്ഥാനക്കാർ പറയും മലയാളം മലയാളമാണ് ഏറ്റവും കൂടുതൽ സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ള ഭാഷ അല്ലെങ്കിൽ അത്രയും സ്പഷ്ടമായ സംസാരിക്കേണ്ട അത്രെയും കഠിനമായും സംസാരിക്കേം കഠിനം അത്രെയും അങ്ങനത്തെ അക്ഷരങ്ങളുള്ള എഴുതാനും വായിക്കാനും മനസ്സിലാക്കാനും കുറച്ചധികം ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്ന ഒരു ഭാഷയാണ് മലയാള ഭാഷ മറ്റ് സംസ്ഥാനക്കാർക്ക് കൃത്യമായിട്ടും നമ്മൾ മലയാളികളെന്ന രീതിയിൽ നമ്മൾ മറ്റൊരിടത്തോട്ട് ചെല്ലുമ്പോൾ നമ്മഡൈഡൻടിറ്റി കൃത്യമായും പറഞ്ഞ് വയ്ക്കാൻ അല്ലെങ്കിൽ നമ്മുടെ ഐഡൻടിറ്റിയെ നില ഉറപ്പിക്കാനൊക്കെ മലയാള ഭാഷ ഒരുപാട് അധികം സഹായിക്കുന്നുണ്ട് നമ്മുടെ ലിറ്ററേച്ചർ നമ്മുടെ സാഹിത്യ കൃതികൾ ഒക്കെ നമ്മൾ മറ്റൊരിടത്തേക്ക് ചെല്ലുമ്പോൾ നമ്മളെ അടയാളപ്പെടുന്നത് വ്യക്തമായും അങ്ങനെ ഉള്ള രീതിയിലേക്കാണ് അങ്ങനെ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഒരു സാംസ്കാരിക സ്വത്തം രൂപപ്പെടുത്തുന്നതിൽ ഒരുപാട് വലിയ പങ്ക് നമ്മുടെ ഭാഷ വഹിക്കുന്നുണ്ട്